മലയാള ഭാഷയിലെ സാഹിത്യവും കവിതയും

സംസ്കാരത്തിലേക്ക് തള്ളിവിടുന്നതാണ് മനുഷ്യൻ്റെ സാംസ്കാരിക ഉന്നമനത്തിന് മലയാള ഭാഷ ഭാഷയും സാഹിത്യവും വളരെയേറെ മാറ്റുരി മാറ്റ് നൽകുന്നുണ്ട് കവിതയിലും സാഹിത്യത്തിലും അടങ്ങിയിരുന്ന എല്ലാ മൂല്യങ്ങളും ഈ അടുത്തകാലത്ത് കുറഞ്ഞുകുറഞ്ഞു വരുന്നതായി കാണുന്നു അതായത് വിലയില്ലാത്ത ചില നുറുങ്ങ് സാഹിത്യങ്ങളും മാറ്റർ ഇല്ലാത്ത ചില കാര്യങ്ങളും പെരുപ്പിച്ച് കാണിച്ച് സാഹിത്യത്തേയും കവിതയേയും വികലമാക്കുന്നത് ഈ അടുത്ത കാലങ്ങളിലുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കുമാരനാശാനെ പോലെയും പോലെയുള്ള കവികളും സാഹിത്യകാരന്മാരും മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള ഈടുറ്റ കാര്യങ്ങളിൽ വെറും ശുഷ്കമായ ഭാഷയിൽ അവതരിപ്പിച്ച് അതിൻ്റെ വില കുറച്ച് കാണിക്കുന്നതിലാണ് ഇപ്പോൾ കുറേ ആളുകൾക്ക് താല്പര്യം ഭാഷയെ സ്നേഹിക്കുന്നവർ അതിനെ ഒരുകാലവും അംഗീകരിക്കില്ല മലയാള ഭാഷയെ ഭാഷ നമ്മുടെ അമ്മയോളം തന്നെ പ്രധാനപ്പെട്ടതാണ് മലയാളമാണ് നമ്മുടെ ഭാഷയെന്ന് ഉച്ചത്തിൽ വിളിച്ചുപറയുവാൻ തക്കവണ്ണമുള്ള തൻറേടവും താൽപ്പര്യവും നമ്മൾ ഓരോരുത്തരും കാണിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു